ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യാത്രാ വ്യവസായത്തെ സാങ്കേതിക വിദ്യ നല്ല രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത് കാരണമെന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ബസ്സ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മൊബൈലിലൂടെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കേ ഇണ്ടായാൽ മാത്രം മതി അപ്പം അത്രയ്ക്കും നമുക്ക് നല്ല രീതിയിലുള്ള അതായത് ഓരോ മനുഷ്യൻ്റെ ഇടയിലും ഈ സാങ്കേതിക വിദ്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവട് വെച്ചിട്ട് വെച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരാളുടെയടുത്തുപോലും മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടമായിട്ട് ഇപ്പോൾ മാറുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഏകദേശം കാര്യങ്ങളും ടച്ച് ഫോണിലൂടെ ആണ് ഇപ്പോൾ ഒരു വയസ്സായ ആൾ ഉപയോഗിക്കുന്നത് വരെ ടച്ച് ഫോണിലാണ് അപ്പം നമുക്കാ ടച്ച് ഫോണിൽ നമ്മൾക്ക് നെറ്റും കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്കതിനത്ത് നോക്കി കഴിഞ്ഞാൽ അതായതിപ്പോൾ എന്താണെങ്കിലും നമുക്കതിനകത്തു നിന്ന് കിട്ടാവുന്നതാണ് കിട്ടുന്നതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമുക്കൊരു ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് ഒരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഫോണിലൂടെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും പിന്നേ അതിൻ്റെ റേറ്റിംഗ് പരിശോധിക്കാൻ ഇപ്പോൾ നല്ല ഒരു പാടമാണ് ഓടുന്നതെങ്കിൽ അതിൻറെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി നമുക്ക് പറ്റും പിന്നേ ട്രെയിന് നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഓൺലൈൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് ഫോണ് വഴി നമുക്ക് വേണമെങ്കില് ബുക്ക് ചെയ്യാം പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണം പോലും നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ എഴുതി കാണിക്കും ഇന്ന് ഇന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട് ഇന്ന സ്ഥലത്ത് മഴയില്ല അങ്ങനെയൊക്കേ എഴുതിവെയ്ക്കുന്നതാണ് അപ്പം നല്ലൊരു രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സാങ്കേതികവിദ്യയിൽ പറയാനുള്ളത്